ചേട്ടാ ഞാനൊരു റെൻറ്റെ കാറിന് വേണ്ടിയാണ് ഇപ്പോള് വിളിച്ചത് ഞാൻ ഇവിടന്വേഷിച്ചപ്പോഴാണ് നിങ്ങളെ വിളിക്കാൻ പറഞ്ഞത് നിങ്ങള്ക്ക് വലിയ വണ്ടിയുണ്ടോ അതോ ചെറിയ കാറേ ഉള്ളോ സെവൻ സീറ്ററാണോ അതോ ഫൈവ് സീറ്ററാണോ എനിക്കൊരു സെവൻ സീറ്ററായിരുന്നു വേണ്ടേ വീട്ടില് പിള്ളാരും കുടുംബാംഗങ്ങളെ എല്ലാം കൂടെ കൊണ്ടുപോകാൻ വേണ്ടിയായിരുന്നു കിലോമീറ്ററിനെന്നാ റേറ്റാകുമോ അതിനെക്കുറിച്ച് ഓ അങ്ങനെയാണല്ലേ നിങ്ങള് ഇരുവത് രൂപ എന്നാലിപ്പോള് ആദ്യത്തെ എൺപത് കിലോമീറ്ററിന് മൂവായിരം രൂപയാവും അതിന് ശേഷം ഇരുപത് രൂപാല്ലെ ഓക്കേ ഓക്കേ അങ്ങനെയാണെങ്കില് ഞങ്ങളിവിടുന്ന് ഊട്ടിക്ക് പോകാൻ വേണ്ടിയാണ് പ്ലാൻ ചെയ്യുന്നത് അപ്പോള് അതനുസരിച്ചുള്ള ഒരു ഇത് പറയുമ്പോള് ഏകദേശം മുന്നൂറ്റമ്പത് മുന്നൂറ്റെഴുപത് കിലോ മീറ്റര് വരും അപ്പോള് മുന്നൂറ് പിന്നെ അപ്പ് ആൻഡ് ഡൗൺ വരുമ്പോഴത്തേക്കും അത് അറുന്നൂറാകുമല്ലേ അറുന്നൂറ് കിലോ മീറ്ററിൻ്റെ പൈസ തരേണ്ടിവരും ആ കുഴപ്പമില്ല ഞാൻ എന്നെ ഒന്ന് കൃത്യമായിട്ടൊന്ന് ഡേയ്റ്റൊക്കെ പ്ലാൻ ചെയ്തിട്ട് ഞാൻ വിളിക്കാമേ ഓക്കേ